നമ്മുടെ നാട്ടിൽ പല രീതിയിലുള്ള അതായത് കലകൗശരം കരകൗശല വസ്തുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മൺപാത്ര നിർമ്മാണങ്ങൾ തന്നെ ഇഷ്ടംപോലെ രീതിയിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ളൊരു നിർമ്മാണവും കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ട് പല രീതിയിൽ പല വ്യവസായ പ്രമു വ്യവസങ്ങളായിട്ട് നടത്തുന്നുണ്ട് അല്ലാണ്ട് വലിയ രീതിയിൽ പൈസയ്ക്കും അങ്ങനെയൊന്നും അല്ലാണ്ടും നടത്തുന്ന ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ എക്സിബിഷൻ ഹാളിലോ അങ്ങനെന്തെങ്കിലും പരിപാടികളൊക്കെ നടത്തുമ്പോഴാണ് കൂടുതലായിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയൂ അല്ലാണ്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വലിയ രീതിയിലൊന്നും അറിയാൻ പറ്റില്ല കാരണം ഇവരെല്ലാം ഒരു ഉൾനാടുകളിലൊക്കെയാണ് കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് എന്ന് വേണ്ടമെങ്കിൽ പറയാം പിന്നെ പല രീതിയിലുള്ള പെയ്ന്റിങ്സ് കാര്യങ്ങളൊക്കെ നമ്മളുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ തന്നെ പെയ്ന്റിങ്സ് പെയ്ന്റിങ്ങിൻ്റെ ഫെസ്റ്റിവൽ കാര്യങ്ങളൊക്കെ നടത്തും അപ്പം നമുക്ക് പല രീതിയിലുള്ള ചിത്രങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഓരോ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥങ്ങൾ ഒന്നും മനസിലാവണമെന്നില്ല അപ്പോൾ അത് നമ്മൾ കൂടുതലായിട്ട് മനസിലാകുന്നതെങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു രീതിയിലാണ് നമുക്ക് മനസിലാകൂ പക്ഷെ ആ പെയ്ന്റിങ്ങിനൊക്കെ ഓരോ അർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ നല്ല രീതിയിലുള്ള വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ ഒര് പെയ്ന്റിങിന് ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ ഒക്കെ വരാൻ വേണ്ടി അവർക്ക് ലഭിച്ചിട്ടുണ്ടാകും അപ്പോൾ പെയ്ന്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ട് പിന്നെ തുണിത്തരങ്ങൾ അതായത് കൈത്തറി അങ്ങനത്തെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് തുണി ഈ തുണിത്തരങ്ങൾ കൈത്തറി വിഭാഗവും എന്താ പറയുക യൂസേയ്യുന്ന ഇഷ്ടംപോലെ ആൾകാർ നമ്മളുടെ നാട്ടിലുണ്ട്